ആ കേൾക്കാമോ

ഹലോ ആ ഞാൻ വിളിച്ചതേ അഡ്വക്കേറ്റ് ജോസെഫല്ലേ ആ ഞാൻ വിളിച്ചതേ എനിക്ക് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം ഉണ്ടായായിരുന്നു അതിൻ്റെ ഒരു വിവരം അറിയാനായിട്ട് വിളിച്ചതായിരുന്നെ ആ അപ്പോൾ അത് അതിന് അതിൻറ്റകത്തിനി എന്താ ചെയ്യേണ്ടതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതെ ഇന്നലെയായിരുന്നു മോഷണം നടന്നത് ആ ഇന്നലെയായിരുന്നു ആ ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഞങ്ങളൊരു വിവാഹത്തിനു പോയതായിരുന്നു ഞങ്ങൾ വീട് അടച്ചിട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ അത് വീടടച്ചിട്ടിട്ട് പോയി ഇന്ന് തിരിച്ചു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറ് പൊളിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ അ വീടിൻ്റെ അകത്തുകയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറേ ഗോൾഡ് ഓർണമെൻറ്റ്സും ആ ആ കുറച്ച് ലിക്വിഡ് ക്യാഷും പണവും ഒക്കെ മോഷണം പോയിട്ടുള്ളതായിട്ട് കണ്ടു ഒരു മൊബൈൽ ഫോണ് മറ്റ് കുറച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മോഷണം പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇനിയിപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ നിയമപരമായ നടപടികൾക്ക് ഏ ആ ഈ സ്ഥലം കൊന്നത്തടി വില്ലേജിൽ പാറത്തോട് പാറത്തോട് കണ്ണാടിപ്പാറ ഭാഗത്ത് അതെ അതെ അതെ അതെ ഞങ്ങൾ ഒരു വിവാഹത്തിന് പോയതായിരുന്നു എറണാകുളം ഞങ്ങൾക്കാരെയും പ്രത്യേകിച്ച് സംശയം ഇല്ല ഞങ്ങളിപ്പോൾ വന്നു കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആണ് കണ്ടത് അപ്പം ഉടനെത്തന്നെ സാറിനെ വിളിക്കുവാണ് ചെയ്തത് അപ്പം മോഷണം നടന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങളെ വീട്ടിലാരും ആരും ഉണ്ടായിരുന്നില്ല വീട് ഞങ്ങൾ അടച്ചുപൂട്ടി കീ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരുന്നത് ആ ഒരു മൂന്നുലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുള്ള ഉള്ളതായിട്ടാണ് ഇപ്പം ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ ആ അതെ അതെ ഒരു രണ്ടുലക്ഷം രൂപയുടെ സ്വർണ്ണവും ഒരു നാലുപവൻ സ്വർണ്ണവും ഒരു ഒരുലക്ഷം രൂപ അലമാരയിൽ വച്ചിരുന്നത് അത് തമ്മിലാണ് പോയിരിക്കുന്നത് ആരെയും അതിൻറ്റകത്ത് പ്രത്യേകിച്ച് സംശയം ഒന്നും ഇല്ല

മറ്റേ ഫിംഗർപ്രിൻറ്റൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അകത്ത് കിട്ടാവുന്ന അലമാര കുത്തിപൊളിച്ചതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഫിംഗർ ഫിംഗർ പ്രിൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഏ സി സി റ്റി വി ഇല്ല ആ ഇല്ലില്ല സി സി റ്റി വി ഇല്ല അതുകൊണ്ടാത് ആ അതുണ്ടെങ്കിൽ ഒരു ബലമായിരുന്നു നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല പോലീസ് സ്റ്റേഷൻല് അറിയിച്ചില്ല ഞാൻ ഇപ്പോൾ ആദ്യം സാറിനെ വിളിച്ചൊന്ന് ചോദിക്കുകയാ ഒരു നിയമോപദേശം ആ പോലീസ് സ്റ്റേഷൻല് അറിയിക്കണം അല്ലേ ആദ്യം ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കണം

അതെ കൊടുക്കുന്ന പരാതിയുടെ കോപ്പി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അതെ ആയിക്കോട്ടെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ സാറിൻ്റടുത്ത് രാവിലെ വരാം എന്നിട്ട് ഇന്നിപ്പോൾ അസമയായിപ്പോയതുകൊണ്ട് നമുക്ക് നാളെയൊരു പരാതി റിട്ടണായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം അതുപോരെ ആ പേപ്പറ് വേടിക്കാം വേടിക്കാം റെസിപ്റ്റ് വേടിക്കാം

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ മ്മ് ശരി എന്നാൽ ഓക്കെ